നമസ്കാരം ആ പറയൂ സാർ ആ അതെ വൃന്ദാവൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് പറയൂ എന്താണ് വേണ്ടത് ആ സാർ ഓർമ്മ ഉണ്ട് സാർ പറയൂ സാർ എന്താണ് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ഇല്ല സാറിൻ്റെ പേരും ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ

ആ ഓക്കെ സാർ എന്താണ് സാറിൻ്റെ ഉദ്ദേശം ആ അതിന് ആ സാർ നല്ലകാര്യം ആണ് ആയ ആ ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങൾ അങ്ങനെ ഉള്ളവ ആണോ സാർ സാർ ഏതാണ് ഉദ്ദേശിക്കുന്നത് പുരാതനംന്ന് പറയുമ്പോ കൊറെ ക്ഷേത്രങ്ങൾ ഇണ്ട് സാർ ക്ഷേത്രങ്ങള് കൊറെ ഉണ്ട് സാർ ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രം ആണോ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന അതെ സാറേ കേരളത്തില് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ അവിടെ ആണ് സ്ഥിതി

സാർ കുറച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അവിടെ അവിടെ ഏറ്റവും സമ്പന്നമായത് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് നിലവറകൾ ഉണ്ട് സാർ സാർ പ്രശസ്തമായ രണ്ട് നിലവറകൾ ഉണ്ട് എ ബി സാറ് കേട്ടിട്ട് ഉണ്ടാവും അല്ലേ ആ നിലവിൽ എ നിലവറ മാത്രമേ തൊറന്നിട്ട് ഉള്ളൂ ബി നിലവറ ഇത് വരെ തുറന്നിട്ട് ഇല്ല എ നിലവറയിൽ അമൂല്യമായ രത്നങ്ങളും വൈര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാർ കണ്ട് എടുത്തിട്ട് ഉണ്ട് സാർ അതെ അതേപോലെ ബി ആ വായിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ സാർ ഉം ബാക്കി അതുകൊണ്ടാണ് അവിടെ സമ്പന്നമായ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ബാക്കി ഒക്കെ യാത്രാ മദ്ധ്യേ ഞാൻ പറഞ്ഞ് തരുന്നത് ആയിരിക്കും സാർ വേറെ എന്തെലും സംശയം ഉണ്ടോ ആ ഓക്കേ സാർ സാധാരണക്കാര് സംസാരിക്കും അല്ല സാധാരണക്കാര് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ക്ഷേത്രം എന്തുകൊണ്ടാണ് എന്നാണോ ആ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടത്തെ രാജഭരണ കാലത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രം ആണ് സാർ അതുകൊണ്ട് ആണ് പണ്ടത്തെ രാജഭരണ കാലത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രം ആണ് ഇപ്പോൾ തിരുവിതാംകൂർ രാജ കുടുംബം ആണ് അതിൻ്റെ നടത്തിപ്പ് നടത്തിവരുന്നത് നിലവറ ഉള്ളത് കൊണ്ട് മാത്രം അല്ല മാത്രം അല്ല സാർ അവിടെ അവിടെ മുഖ്യ പ്രതിഷ്ഠയായ മഹാ വിഷ്ണുവിൻ്റെ വിഗ്രഹം പോലും തങ്കത്തിലാണ് പൊതിഞ്ഞത് പിന്നെ അതേപോലത്തന്നെ രാജാക്കന്മാറ് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് ഈ നിലവറകളിലാണ് അവരുടെ അമൂല്യങ്ങൾ ആയ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്

ആ ഓക്കെ സാർ അത് നമുക്ക് ഇരുപത്തി രണ്ടാം തിയതി ഇരുപത്തൊന്നാം തീയ്യതി സാറ് വിളിച്ചൊന്ന് ശരിയാക്ക് നമുക്ക് ഒന്ന് ശരിയാക്കാം ഒന്ന് ഒന്നും കൂടി വിളിക്കണം സാർ എങ്ങനെയാണ് പോവുന്നതെന്ന് എങ്ങനെ ആണ് പോവുന്നത് എന്ന് ഒക്കെ അന്ന് ഞങ്ങൾ പറയുന്നതാണ് സാർ ഒന്ന് തീർച്ചയായും ഒന്ന് വിളിക്കുക ഒരുപാട് സന്തോഷം വിളിച്ചതിൽ നന്ദി സാർ വീണ്ടും വിളിക്കുക